ഈ കാലഘട്ടത്തിൽ ഞാൻ ജാസ്സെന്ന പ്രസ്ഥാനത്തിൽക്കൂടെ ജാസിൻ്റെ വിവിധ മേഘലകളെ തിരിച്ചറിയാൻ സാധിച്ചു വിവിധ മേഘലകളിലുള്ള യൂണിറ്റുകളേ നമുക്ക് കണ്ടെത്തുവാനും അവിടെയുള്ള ജാസിൻ്റെ പ്രാദേശിക പ്രാധിനിത്യം ഉള്ള എല്ലാവരേയും ഭാരവാഹികളെ പ്രസ്ഥാനത്തെ നട പ്പേ ഉള്ള നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരേ അതുപോലെതന്നെ അവിടെയുള്ള നാനാജാതി വിഭാഗത്തിലുള്ള മതസ്ഥരേ അവരുടെയൊക്കെ ഒത്തിരിയും പിന്നെ പ്രോത്സാഹനം പിന്തുണ നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇതൊക്കെ എന്നെ ഒരുപാട് ഒത്തിരി സംതൃപ്തി എനിക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് ലഭ്യമാകുന്ന വേദനം എന്നതിലുപരി നാം ചെയ്യുന്നൊരു ശുശ്രൂഷ മേഘല ആണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നതും നാം പറയുന്നവയേ കേൾക്കുവാനും അവരിലേക്കെനിക്കൊത്തിരി സ്വാധീനം ചെലുത്തുവാൻ സ്വാധീനിക്കുക അവരെ എനിക്കൊത്തിരി സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ എൻ്റെ എൻ എന്നിൽ അവർക്കൊരു വിശ്വാസ്യത എനിക്കത് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലത്തന്നെ ഏത് സമയത്തും എപ്പോഴും എവിടെയെങ്കിലും ഒരു നല്ല നമുക്കൊരു സുഹൃത്തെപ്പോഴും നമുക്കുണ്ട് നാമീ മേഖലകളിലെ ആളുകളെ പരിചയസമ്പത്തുകൊണ്ട് ആർജിച്ചെടുത്ത ആ ബന്ധത്തിലൂടെ ഇപ്പോഴും നമുക്കൊരു സുഹൃത്ത് വലയം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലത്തന്നെ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് പല കാര്യങ്ങളും അവരിലേക്ക് നൽകി പറഞ്ഞു കൊടുക്കുവാനും ഒപ്പം അവരുടെ ആ ഒരു ഫോൺ കോളിലൂടെ അവൾക്ക് അവർക്ക് ജാസിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കിയെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് എനിക്ക് ജാസ്സ് തന്നെ ഞാനെന്ന വ്യക്തിയേ ഈ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അറിയപ്പെടുവാൻ എന്നെ സഹായിച്ചത് ഈ ജാസെന്ന പ്രസ്ഥാനമാണ് എൻ്റെ വ്യക്തിത്വപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ചാസൊരുപാട് സഹായം നൽകി ഒത്തിരി മാർഗ്ഗങ്ങൾ കാണിച്ചുതന്നിട്ടുണ്ട് ഈ മാർഗ്ഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് വളർത്താൻ ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ അറിവുള്ളവർ അതുപോലത്തന്നെ അനുഭവജ്ഞാനമുള്ളവർ പരിചയസമ്പത്തുള്ളവർ അവരിൽ നിന്നൊക്കെ എനിക്ക് നേടാൻ സാധിച്ച അറിവ് അതെന്നെ വളർത്തുകയാണ് മുന്നോട്ട് ചെയ്തത് ഇതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ ഈ കാ ഇതിൽ നിന്നുകൊണ്ട് ഈ ഫ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു പല കാര്യങ്ങളേക്കുറിച്ചും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഈ പരിശീലനം ആർജിച്ചതുകൊണ്ട് അത് ഞാൻ ജാസിന് വേണ്ടി മറ്റുള്ളവരുടെ ഇടയിലത് ഫലപ്രാപ്തി എത്തിച്ച് കൊടുക്കാനായിട്ടെനിക്ക് സഹായകമായി അതുപോലെത്തന്നെ എനിക്കൊത്തിരി സംതൃപ്തി നേടുന്നതാണ് ഒരുപാട് പേരെടുത്ത് പറയാവുന്ന വ്യക്തി ബന്ധങ്ങൾ നല്ല നിസ്വാർത്ഥസേവനം ചെയ്യുന്നവർ അതുപോലത്തന്നെ നമ്മോടൊപ്പം നിന്നുകൊണ്ട് ജാസിൻ്റെ സംഘടനാപരമായ സ്വയഭ ഉദാഹരണം സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുവാനായിട്ട് അതുപോലെ സ്വാശ്രയ സംഘങ്ങളൊത്തിരി രൂപീകരിച്ച് കഴിയുമ്പം അതിനെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പോകുവാനായിട്ട് അവിടെ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ചില എണ്ണ വിരലിൽ എണ്ണി എടുക്കാവുന്നിടത്തോളം ആളുകൾ നമ്മുടെ കയ്യിലുണ്ട് വിരലിലെണ്ണി എടുക്കാവുന്നതിനുമപ്പുറം ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്കൊരു മുതൽക്കൂട്ടാണ് അപ്പം ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ മനസ്സിലാക്കുവാൻ ഒരുപാട് തുറകളിൽ പ്രവർത്തിപരിചയമുള്ള വ്യക്തികൾ ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സ്സ് അതുപോലെത്തന്നെ നല്ല നല്ല സ്ഥാപനങ്ങളുടെ മേധാവികൾ അതുപോലെത്തന്നെ സർവ്വീസിലിരിക്കുന്ന ആളുകൾ സർവ്വീസിൽ നിന്ന് വിരമിച്ച ആളുകൾ അങ്ങനെ ഒത്തിരി ഓർമ്മയിൽത്തങ്ങാവുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ എനിക്ക് കണ്ടുമുട്ടുവാനും മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കലിലൂടെ കൂടുതലാളുകൾക്ക് എന്നിലെ അറിവുകൾ പറഞ്ഞ് കൊടുക്കുവാൻ എനിക്കൊത്തിരി പിൻബലമായിട്ടും പ്രോത്സാഹനമായിട്ടുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടുമെനിക്കിതൊരു നല്ലൊരു വഴിയായിട്ടും നല്ലൊരു വഴിത്താര ആയിട്ടും നല്ലൊരു ശുശ്രൂഷ മേഖലയായിട്ടുമൊക്കെ എനിക്ക് സഹായകമായി